തലവേദന വരുമ്പോൾ മാറ്റാൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രചാരത്തിലുള്ള ചില നാട്ടുവൈദ്യങ്ങളിൽ ഒന്നാണ് ആയുർവേദ പച്ച മരുന്നുകൾ അരച്ച് നെറ്റിയിൽ പുരട്ടിയൊരു വെള്ള തുണി വെച്ച് മൂടിവെക്കുക ഇതിലൂടെ ഇതിലൂടെ നമ്മുടെ തലവേദന മാറാൻ സഹായിക്കുന്നു രണ്ടാമതായി ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് വിശ്രമം തലവേദന വരുമ്പോൾ നന്നായി റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഉറക്കത്തിലൂടെ നമുക്ക് നമ്മുടെ തലവേദന മാറാൻ സഹായിക്കുന്നു അടുത്തതായി വരുന്നതാണ് നമ്മുടെ തുളസിയിലയും കുരുമുളകും എന്നു വേണ്ട ചില ആയുർവേദ മരുന്നുകളുപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയെന്നത് ഇതിലൂടെ നമ്മുടെ തലവേദന കുറയാൻ സഹായിക്കുന്നു തലവേദനയെടുക്കുന്ന സമയത്ത് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ നമുക്ക് തലവേദന വരുന്നതാണ് അതുകൊണ്ടുതന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക